ഉച്ചയൂണിനു ഞാന് പൊതുവെ ചോറും കറിയും തന്നെയാണ് ചോറും ഒരു കറിയും നല്ല മീ മീനുമുണ്ടെങ്കിൽ മീൻ വറത്തതും മീൻ വരട്ടിയതും പിന്നെ ഉപ്പേരിക്കെന്തെങ്കിലും ഉണ്ടേൽ ഉപ്പേരിയും ഇങ്ങനെ മൂന്ന് നാല് ഐറ്റം ഉണ്ടാകും ഉച്ചയൂണിന് അതുവല്ലെങ്കിൽ അച്ചാർ ഇപ്പൊൾ ഒരു പാട് ഐറ്റമൊന്നുമില്ലെങ്കിൽ ഒന്നുങ്കിൽ അച്ചാറ് ചമ്മന്തി ഇവ പൊടിക്കും പിന്നെ വെള്ളവും പിന്നെ രാത്രിയല്ലെങ്കില് അത്താഴത്തിന് എന്നത് ഉച്ചക്ക് ചോറുള്ളത് ബാക്കിണ്ടങ്കിലത് തന്നെ അതും കറി അതും ഉള്ള കറിയും കൂട്ടി കഴിക്കും അല്ലെങ്കില് ചപ്പാത്തിയോ അല്ലേ ബൂരിയോ അതുപോലുള്ള എന്തെങ്കിലും ആക്കും അതൊക്കെ എപ്പോഴെങ്കിലും രാത്രി ചോറ് തന്നെയാണിഷ്ടം കൂടുതലും